രാഷ്ട്രീയത്തോടെ എനിക്ക് തീരെ താൽപര്യമില്ല രാഷ്ട്രീയത്ത് എനിക്ക് അതിനോട് ഒട്ടും തന്നെ ഒരു ഇഷ്ടമില്ല പിന്നെ ഈ വാർത്തകൾ പത്രമൊക്കെ വായിക്കും പത്രത്തിലെ വാർത്തകളായിരിക്കും പ്രത്യേകിച്ചു ഞാൻ ചരമകോളമായിരിക്കും ആദ്യം തന്നെ നോക്കുന്നത് പിന്നെ ഞാൻ അറിയുന്ന ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നു ആദ്യം തന്നെ നോക്കും ഇല്ല എന്നറിയുമ്പോൾ സമാധാനമാവും അത് കഴിഞ്ഞു പിന്നെ സമാധനം എത്ര പിന്നെ ഈ പത്രത്തിൽ മെയിനായിട്ട് പുതിയ പുതിയ വാർത്തകൾ വരുന്നുണ്ടല്ലോ അതൊക്കെ ശ്രദ്ധിക്കും പിന്നെ എനിക്ക് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ആ കാരണം ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ കാലത്തെ കുഞ്ഞുങ്ങളെല്ലാം ഈ തലതിരിഞ്ഞു പോയ മക്കളായത് കൊണ്ട് അവരെ എങ്ങനെ നമ്മൾ കൺട്രോള് ചെയ്യും എന്ന ഒരു ഇത് കണ്ട്രോള്

ആ ഇപ്പോഴത്തെ ഇപ്പം ഓരോ കുട്ടികളുടെ പ്രവർത്തനങ്ങളും ആ ഒരു രീതികളും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതുപോലൊ ഒരു പ്രശ്നം വരാൻ മെയിൻ കാരണമായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വാർത്തകൾ നല്ലതാണ് നമ്മൾ ഈ എല്ലാം ഈ എന്താണ് പറയുക ഈ ന്യൂസ് കാണുമ്പം തന്നെ നമുക്ക് ആ എനിക്ക് ഈ ന്യൂസ് കാണുമ്പം തന്നെ പേടിയാണ് കാരണം ഏത് കുഞ്ഞുങ്ങളാണോ ആരെയാണോ കൊല്ലുന്നത് കൊല്ലുന്നത് മാതാപിതാക്കളെ ആണോ അതോ സഹാപാഠികളെ ആണോ അതോ ഇനി അയൽക്കാരെ ആണോ കുഞ്ഞ് പൊടിക്കുഞ്ഞുങ്ങളെ ആണോ അവർ ഏത് തരത്തിലാണ് കൊല്ലുന്നത് അതൊക്കെ ഓർത്താൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ദൈവമേ ഇവരെ കാര്യത്തിൽ അവർക്ക് അവരെ തന്നെ ഒന്നു നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പിന്നെ പാവപ്പെട്ട മാതാപിതാക്കളുടെ കാര്യം പറയാനുണ്ടോ അവരെ എന്തു ചെയ്യാനാണ് ആ അവർ അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പിന്നെ അതുമല്ല പിന്നെ അവനവനെ അവനവൻ തന്നെ സൂക്ഷിക്കുക ആയിരിക്കും ഏറ്റവും നല്ലത് ഈ ന്യൂസ് നമുക്ക് ഒരു ഒരു പരിധി വരെ നമുക്ക് ഈ ഈ ന്യൂസ് കാണുന്നതും കേൾക്കുന്നതും നല്ലതാണ് കാരണം പുറത്തു നടക്കുന്ന ഈ നമ്മുടെ പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടല്ലോ അതു തന്നെ ഒരു വലിയ ഒരു കാര്യമാണ് കാരണം നമുക്ക് മറ്റുള്ളവർക്ക് ഇതിനെ കുറിച്ച് ഇങ്ങനെ ഒരു സംഭവമുണ്ടായി എന്നു ഒരു ചർച്ച ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഒരു ഒരു ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൾ നമ്മൾ പറയും ഇ ഇന്ന് ന്യൂസിൽ വന്ന വാർത്ത ഇതാണ് അതായത് ഇന്ന സ്ഥലത്ത് ഭയങ്കര മഴ ഉണ്ടായി എൻ്റെ ദൈവമേ എത്ര പേരാണ് ആ ഒഴിക്കിൽ പെട്ടു മരിച്ചു പോയത് ഓ എൻ്റെ എനിക്ക് എൻ്റെ ചങ്ക് പിടയുന്നു എൻ്റെ ദൈവമേ നമ്മൾ ഈ മലമണ്ടയിൽ കിടക്കുകയാണെങ്കിലും ആ ഇങ്ങോട്ട് വെള്ളം വരില്ല എന്നൊരു ചിന്താഗതിയുണ്ട് പക്ഷെ അങ്ങനെ അല്ല ഒരു ഭൂകമ്പം വന്നാൽ മതി നമ്മളും അതോടു കൂടി അങ്ങ് പോകും അപ്പം എപ്പം വേണമെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുപാട് എന്തു വേണമെങ്കിലും സംഭവിക്കാം അപ്പം ഈ മരണം തൊട്ട് പിന്നാലെ ഉണ്ടെന്നുള്ള ഒരു ചിന്തഗതി നമുക്ക് എപ്പോഴും വേണം അപ്പം ഈ പല സ്ഥലത്തും പല അപകടങ്ങളും നമുക്ക് ഈ ഭൂകമ്പം സുനാമി അതുപോലെ ഓരോ വൈറസിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഒക്കെ കേൾക്കുമ്പം തന്നെ നമുക്ക് പേടിയാണ് അപ്പം നമുക്ക് ഇങ്ങനെ കുറച്ചു അറിവൊക്കെ കിട്ടി കഴിയുമ്പം നമുക്ക് അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടെൻസൻസി നമുക്ക് വരും ഞാൻ അങ്ങനെയാണ് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ അറിവുള്ളത് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അത് ഇങ്ങനെ അത് മനസ്സിലാകാത്തവർകൊക്കെ പറഞ്ഞു കൊടുക്കും എന്നു വച്ചാൽ ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ളതൊന്നുമല്ല പക്ഷേ ഈ കിട്ടുന്ന അറിവുകളും എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ് അങ്ങനെ അവർക്ക് കൂടി ആ അറിവ് ഉണ്ടായിരിക്കണമെന്ന ഒരു ചിന്താഗതി എനിക്ക് ഉണ്ട് പിന്നെ അതുപോലെ ഇങ്ങനെ ഈ എന്നതാ ഈ പത്ര വാർത്തകൾ മീഡിയയിൽ കൂടെ വരുന്നത് എല്ലാം നമുക്ക് ചില കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് നമ്മൾ അത് അത് നമ്മൾ ഉൾക്കൊള്ളും കാരണം ഇപ്പോൾ ന്യൂസ് കാണാൻ തന്നെ പേടിയാണ് കാരണം ന്യൂസ് തുറന്നാൽ എന്ത് വാർത്തയാണ് വരുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ആ ന്യൂസ് റീഡർ അവിടെ ഇരുന്നു പറയാൻ തുടങ്ങുമ്പം തന്നെ ദൈവമേ ആ അടുത്തത് ആ മകൻ അപ്പനെ ആയിരിക്കും കൊന്നിരിക്കുന്നത് അല്ലെങ്കിൽ അമ്മയെ ആയിരിക്കും കൊന്നിരിക്കുന്നത് ഈശോയെ അത് കേൾക്കാനുള്ള ഒരു മനക്കരുത്ത് എനിക്ക് ഇല്ല എൻ്റെ ഇതിൽ നിന്നും ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ അവർക്ക് ഒരു ഇപ്പം ഒരു ഇപ്പം ഏതെങ്കിലുമൊരു എന്നതാ പറയുക ഇപ്പ ഒരു മധ്യ വയസ്ക്കൻ ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നു എന്ന് വിചാരിച്ചോ അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തേ അടങ്ങൂ കാരണം അവന് തൂക്ക് കയർ തന്നെ കിട്ടണമെന്നായിരിക്കും എൻ്റെ ആഗ്രഹം അത് കിട്ടിക്കഴിയുമ്പോൾ ആ പിഞ്ചു കുഞ്ഞിന് ഇതുപോലെ ക്രൂരമായി കൊന്ന ആ കാലമാടന് ഒരു ശിഷ കിട്ടണമെന്നും എന്നുള്ള ഒരു ചിന്ത ഒരു ഒരു സന്തോഷം എനിക്ക് ഉണ്ടാവും അങ്ങനെ പല ന്യൂസുകളും നമ്മൾ കേൾക്കുമ്പോൾ പല തരത്തിലുള്ള അഭിപ്രായമാണ് പല തരത്തിലുള്ള നമ്മൾ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കും നമ്മൾ പറഞ്ഞാൾ ഞാൻ പറയും അതായത് ഇന്നതിൻ്റെ ഇന്ന ശിക്ഷ കിട്ടണം ഇന്നതിന് ഈ ഈ ക്രൂര കൃത്യം ചെയ്ത ആൾക്ക് ഇതുപോലെ ശിക്ഷ കിട്ടണം കിട്ടിയില്ല ഏങ്കിൽ ശരിയാകത്തില്ല അങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെ എണ്ണിപ്പെറുക്കി കൊണ്ടിരിക്കും